ഇപ്പോൾ അന്താരാഷ്ട്രതലത്തിൽ നമുക്ക് കൂടുതലായിട്ടും അംഗീകാരം കിട്ടിയ കായികം ഏതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് പറയാൻ പറ്റും ഹോക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ മൈനായിട്ടുള്ള ഒരു വിനോദമാണ് ഹോക്കി അപ്പോൾ ഹോക്കിയാണ് നമ്മുടെ എന്താണ് രാഷ്ട്ര കളി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ നമുക്ക് കൂടുതലായിട്ടും ഹോക്കിയങ്ങനെ നമ്മൾ കൂടുതലായിട്ടും ആൾക്കാർ കാണുന്നില്ല പക്ഷെ ഹോക്കിയാണ് നമ്മുടെ മെയിൻ വിനോദം ആണ് പക്ഷെ ഹോക്കിയങ്ങനെ കാണുന്നില്ല പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റാണ് അപ്പോൾ ഈ ക്രിക്കറ്റ് തന്നെ അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ നല്ലരീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കളിയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഇന്ത്യ ശ്രീലങ്ക കളിയുണ്ട് കളിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇന്നാണ് ഫൈനൽ അപ്പോൾ അങ്ങനത്തെ കളികളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ടും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യ കളിക്കുന്നത് തന്നെ പല രാജ്യങ്ങളോടാണ് അതായത് പല കണ്ട്രീസിനോടാണ് നമ്മുടെ ഇന്ത്യ കളിക്കുന്നത് ഇന്ന് തന്നെ ഇന്ത്യയും ശ്രീലങ്കയും അതായത് ശ്രീലങ്ക എന്നു പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കൺട്രിയാണ് ശ്രീലങ്ക പിന്നെ കഴിഞ്ഞയാഴ്ച്ച പാകിസ്ഥാനുമായിട്ട് കളിയുണ്ടായിരുന്നു അങ്ങനെ പലരീതിയിൽ കളിക്കുന്ന ഒരു ഇതാണ് കായികമാണ് ഈ ക്രിക്കറ്റെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഫുട് ബോൾ കളിക്കുന്നുണ്ട് ഫുട്ബോളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരു കളിയും കാര്യങ്ങളൊക്കെയാണ്